ഇപ്പോൾ എൻ്റെ തോട്ടത്തിലുണ്ടാവുന്ന പൂക്കളും പഴങ്ങളുമൊക്കെ ഞാൻ സാധാരണ പൂക്കളൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ ഒന്നും ചെയ്യാറില്ല കാരണം അത് പൂവ് എപ്പോഴും ചെടിയിൽ നിൽക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഭംഗി എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് കാരണം ഒരു പുഷ്പ്പം ഒരു പൂവ് അത് ചെടിയായിക്കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ അതിലുണ്ടാവുന്ന ഒരു പൂവൊക്കെ പറിച്ച് കഴിയുമ്പോൾ നമുക്ക് എന്താ പറയാ അതിൻ്റെ ജീവൻ്റെ ഒരു പകുതി നമ്മൾ എടുക്കുന്നതായിട്ടാണ് നമ്മൾ എന്താ പറയാ മനസ്സിൽ കരുതുന്നത് അപ്പോൾ പൂക്കളൊക്കെയാണെങ്കിൽ നമ്മൾ സാധാരണ എന്താചെയ്യാ അങ്ങനെ അതിൽത്തന്നെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് അതിൽ തേനീച്ച പൂമ്പാറ്റ അങ്ങനത്തെയൊക്കെ വന്ന് തേനൊക്കെ കുടിച്ച് പോകുന്നത് കാണാൻ എന്തുകൊണ്ടും നല്ലൊരു കാഴ്ച തന്നെയാണ് എന്നാൽ പഴങ്ങളൊക്കെയാണെങ്കിൽ സാധാരണ നമ്മളിപ്പം കണ്ടുവരുന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ അത് പറിക്കേം അതെന്ന് വെച്ചാൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റുന്നതൊക്കെയാണെങ്കിൽ നമ്മളത് പറിച്ച് തിന്നാനൊക്കെയാണ് ശ്രമിക്കുക കൂടുതലും വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അത് നല്ലരീതിക്ക് തന്നെ കഴിക്കുന്നത് കാരണം പുറത്തുനിന്ന് മേടിക്കുന്നതിൽ ഫുള്ളും വിഷാംശങ്ങളും കാര്യങ്ങളും ഒക്കെയായതുകൊണ്ടുതന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കുന്നത് ഒക്കെ ആവുമ്പോൾ നല്ലോണം വിശ്വസിച്ച് കഴിക്കാനൊക്കെ പറ്റും അപ്പോൾ നമ്മൾ തോട്ടത്തിലുണ്ടാവുന്നതൊക്കെയാണെങ്കിൽ നമ്മളതൊക്കെ പറിച്ച് കഴിക്കേം അടുത്തുള്ളവർക്കൊക്കെ കൊടുക്കേം വീട്ടിൽ വരുന്നവർക്കൊക്കെയായിട്ട് മുറിച്ച് കൊടുക്കേം ഒക്കെയാണ് സാധാരണ ഒക്കെ ചെയ്യുന്നത് അങ്ങനെയാണ് ഞാനും എൻ്റെ വീട്ടിൽ സാധാരണ തോട്ടത്തിൽ ഉണ്ടാവുന്നതൊക്കെ അങ്ങനെയാണ് സാധാരണ ചെയ്യാറ്